ആ അതെ ആ അതെ ആ പറ്റും ആ നിങ്ങൾ വീട് എത്ര സ്കൊയർ ഫീറ്റിൻ്റെ വീടാണ് ഒര് അമ്പത് ലിറ്റ്റൊക്കെ വേണ്ടിവരും നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത്

ആ ആ നമ്മൾ നാലാൾക്കാരാണ് വിടൽ പിന്നെ പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാരിങ്ങനെ കൂട്ടും അപ്പം നിങ്ങൾക്ക് എത്ര ദിസത്തിൻ്റെ ഉള്ളിലാണ് തീർക്കേണ്ടത് എന്നുവെച്ചാൽ ആ ആ പിന്നേ കരാറ് തരാനാണാ നിങ്ങൾ വിചാരിക്കുന്നത്

ആ ആ ആ ആ നമ്മൾ നമ്മൾ വൈകുന്നേരം വരെ പണിയെടുക്കും അപ്പം ഭക്ഷണമൊക്കെ നിങ്ങൾ തരേണ്ടിവരും ആ ആ നോക്കാം അത് ഞാൻ പിന്നെ പറയാം ആ എന്നാൽ ശരി ശരി